രാഷ്ട്രീയത്തിലും ഭരണകൂടത്തെയും പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ വിവരം ഒന്നും ഇല്ല എങ്കിലും സി പി എംകാരും ഇവരും എല്ലാം തമ്മിലുള്ള ഈ മത്സരത്തിൽ പിള്ളേരെ മർദ്ദിക്കുന്ന അതൊരു വലിയ ഒരു കേസ് ആയിട്ട് വന്നിരിക്കുകയാണ് അത് ആരെങ്കിലും ഒന്നുരണ്ട് പിള്ളേരെ ഇടിമുറിയിലിട്ട് ഇടിച്ച് അമക്കി ആ പിള്ളേരെ റാഗിങ്ങ് ചെയ്ത് അവരെ കൊന്നു കൊ കൊന്നു കൊലവിളിക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നമായിട്ട് കുറേ പേർ ഇറങ്ങി തിരിക്കും പിന്നെ അത് കുറേ ക ഇതില്ലാതെ ഇങ്ങനെ അങ്ങ് പിന്നെ കുറച്ച് നാളത്തേക്ക് ഇതൊരു ബഹളവും അതിനെ കുറിച്ച് പഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണകൂടം തന്നെ എൽ ഡി എഫും യു ഡി എഫും കൂടി ഇതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് അവർ തമ്മിൽ വഴക്കാവും വക്കാണമാവും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് വിട്ടു പിന്നെ അടുത്ത കാര്യമായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നടക്കുന്ന ക്ഷേമ പെൻഷൻ ഈ പെൻഷൻ ഉള്ളത് കൊടുക്കേണ്ടത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എപ്പം പറയുമ്പം എല്ലാം പറയണം പി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എപ്പോഴും ടൂർ അതിനൊക്കെ പൈസ ഉണ്ട് ഈ ക്ഷേമനിധി ഈ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഒന്നും ഇല്ലാതെ അവർ ഈ പെൻഷൻ കിട്ടിയാൽ അവരുടെ ജീവിതം അവർക്ക് അവർക്ക് കഞ്ഞി കുടിക്കാനുള്ളത് കിട്ടി അവർ അന്നന്നത്തേടം പറഞ്ഞു വിടും ഏ ആറ് മാസം എട്ട് മാസത്തെ വരെ പെൻഷൻ കിട്ടാത്തവർ ഉണ്ട് അവർക്ക് അത് രണ്ട് പേരുടെ ഒരു വീട്ടിലെ രണ്ട് വ്യക്തിക്ക് കിട്ടുന്നതാണ് ആ കിട്ടുമ്പം അവരുടെ ഒരു വിധത്തിൽ അവരുടെ ജീവിതം തള്ളി നീക്കും ഒരു രോഗാവസ്ഥയിലാണ് മിക്ക കുടുംബക്കാരും ആ രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് ഈ മരുന്ന് വാങ്ങാനും കഞ്ഞി കുടിക്കാനും ഉള്ള ഈ തുക കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസമാണ് ഈ രാഷ്ട്രീയക്കാർ കിടന്ന് ഇങ്ങനെ മത്സരിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം നിങ്ങളുടേതായ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക